ഇപ്പം വിവാഹങ്ങളില് ആളുകള് വധുവിന് നൽകുന്നത് കൂടുതലായിട്ടും പ്രസന്റേഷനാണ് കൂടുതലായിട്ടും നൽകുന്നതെന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ആ സമ നമ്മളിപ്പം കൂടുതലായിട്ടും വേറൊരു വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവർക്ക് ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അപ്പം നമ്മള് കൂടുതലായിട്ടും സാരി ചുരിദാറ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പ്രസന്റേഷൻ ആയിട്ട് കൂടുതലായിട്ടും നൽകുക പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോൾ അല്ലാത്തവര് ഇപ്പം പാവപ്പെട്ട വീട്ടിലെ ആൾക്കാരൊക്കെയാണെങ്കില് കൂടുതലായിട്ടും ക്യാഷും കാര്യങ്ങളൊക്കെ ആയിരിക്കും നട നൽകുന്നത് കാരണം അച്ഛൻ്റെ അടുത്ത് നമ്മളൊരു ലക്കോട്ട് കവർ ഉണ്ട് അപ്പം ആ കവറിൽ ഇട്ടിട്ട് എത്രയാണെങ്കിലും ഇപ്പം അഞ്ഞൂറ് ആണെങ്കില് ഇപ്പം മിനിമം അഞ്ഞൂറ് നമ്മള് കുറയാണ്ട് തന്നെ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അഞ്ഞൂറ് ആണെങ്കിൽ അഞ്ഞൂറ് ഇല്ലേൽ ആയിരം രണ്ടായിരം അങ്ങനെ ഇഷ്ടമുള്ള തുക നമുക്ക് വേണമെങ്കിൽ അവർക്ക് വേണമെങ്കില് കൊടുക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ അവർക്കൊരു സഹായം കൂടിയാവും ഇപ്പോൾ കുറെ മക്കളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കില് അവരെ എല്ലാം കെട്ടിച്ചു വിടണ്ടേ അപ്പം അവർക്കൊരു സഹായവും കാര്യങ്ങളൊക്കെ ആകും അപ്പം അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ടും ക്യാഷും കൊടുക്കാറുണ്ട് അല്ലാത്ത പ്രസന്റേഷനും കാര്യങ്ങളും ഒക്കെ നമ്മള് കൊടുക്കാറുണ്ട് വധുവിനു വേണ്ടിയിട്ടാണെങ്കിലും ഇപ്പം വരൻ്റെ വീട്ടിലാണെങ്കിലും ശരി ഇപ്പം നമ്മൾ ഇഷ്ടമുള്ള സാധനങ്ങൾ നമ്മള് ഇതിലാണ് കൊടുക്കുന്നത് പിന്നെ ഇപ്പോൾ ഉള്ള ആൾക്കാരെന്നു പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീധനവും കാര്യങ്ങളും ഒക്കെ ആരും അറിയാണ്ടൊക്കെ വാങ്ങുന്ന രീതിയില് ഉണ്ട് കാരണം പണ്ടത്തെ ഒരു എന്താ പറഞ്ഞു കഴിഞ്ഞാല് പണ്ട് സ്ത്രീധനമില്ലാണ്ട് ആൾക്കാരാരും പെണ്ണുങ്ങളെ കെട്ടില്ല അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് പിന്നെ ഇപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികളെ കിട്ടാനില്ല പെൺകുട്ടികൾക്ക് ഡിമാൻഡ് കാര്യങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കാരണം എല്ലാവർക്കും ജോലിക്കാരെ മതി അപ്പം പെൺകുട്ടികളെ കിട്ടാണ്ട് ആക്കിട്ടൊക്കെ ഉണ്ട് അപ്പം സ്ത്രീധനം ഇപ്പം അങ്ങനെ വലിയ രീതിയിലുള്ള ആൾക്കാര് വാങ്ങുന്നത് ഒന്നും ഇല്ലാന്ന് വേണമെങ്കിൽ പറയാം